ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് വിദൂര സ്ഥലങ്ങൾക്കും അടുത്തുള്ള സ്ഥലങ്ങൾക്കും ഒക്കെ ഒരുപാട് ബൈക്ക് യാത്രകൾ ഒരുപാട് ബൈക്ക് യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട്

വ മറ്റ് ജീവികൾ മുൻപേക്ക് ചാടിയിട്ടും മറ്റ് വളവുകൾ കാണും നമ്മൾ നമുക്ക് അപരിചിതമായ സ്ഥലങ്ങളിലൂടെ നമ്മൾ ഇപ്പം പലപ്പോഴും കടന്ന് പോകുക ഇതു മുഖേന നമുക്ക് റോഡൊക്കെ അപരിചിതമാകുന്നത് കൊണ്ട് തന്നെ വളരെ അപകട സാധ്യത കൂടിയതാണ് പ്രത്യേകിച്ച് രാത്രി രാത്രി യാത്രകളൊക്കെ അപ്പം ഈ ഒരു ഹെൽമെറ്റ് എന്നുള്ളത് നമ്മൾ പൂർണ്ണം അ ഹെൽമെറ്റ് എന്നുള്ളത് ഈ ഒരു യാത്ര ആരംഭിക്കുന്നതിനു വേണ്ടി നമ്മൾ എല്ലാവരും പൂർണ്ണമായിട്ടും

ഹെൽമെറ്റ് വല്ല കേടുപാടുകളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും സൂക്ഷ്മമായി പരിശോധിച്ചത് മാത്രം അങ്ങനത്തെ ഒരു ഹെൽമെറ്റ് മാത്രം എടുക്കാൻ പാടുള്ളു അതുപോലെ പിന്നെ ഉള്ള

അതുപോലെ അതിൻ്റെ ബ്രേക്കിങ് സിസ്റ്റം ചെയിൻ ഗിയർസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് അതിൽ വളരെ കൃത്യമായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഒരു യാത്രയിൽ

വളരെ വളരെ ബ്രൈറ്റായിട്ടുള്ള അതുപോലെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്ത്രമായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്

അതുപോലെ മറ്റ് പാഡുകൾ നിർബന്ധമായിട്ട് എന്നോളം നമ്മൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്